ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത് പിന്നെ മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രണ്ടാം ക്ലാസ്സൊക്കെ എത്തി ഒന്നിലൊന്നും എനിക്ക് ഒന്നും അറിയത്തിലായിരുന്നു രണ്ടിലൊക്കെ എത്തിയപ്പോഴാണ് അക്ഷരങ്ങൾ പഠിച്ചതും പിന്നെ കൂട്ടി വായിക്കാൻ അപ്പോഴും അറിയില്ല കൂട്ടി നന്നായി കൂട്ടി വായിക്കാൻ ഞാൻ പഠിക്കുന്നത് ഒര് ഏഴിലെത്തിയപ്പോഴാണെന്നാണ് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അമ്മ പറയുമായിരുന്നു കൂട്ടി വായിക്കുകയേ ഇല്ല അക്ഷരം അക്ഷരം പെറുക്കി പെറുക്കി വായിക്കുമെന്ന് പിന്നെ ഒരാഗ്രഹമായിരുന്നു ആറിൽ എത്തിയപ്പോൾ തപ്പിയും തടഞ്ഞൊക്കെ വായിക്കും എന്നാലും അത്ര നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് കൂട്ടി വായിക്കുകയേ ഇല്ലായിരുന്നു പിന്നെ കാലക്രമേണ വായിച്ച് നമ്മള് പഠിക്കുമല്ലോ നമുക്ക് പഠിക്കണമെന്ന് ഞാനൊക്കെ ഒര് ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ബിലോ ആവറേജ് അത്രയേ പക്ഷെ ഒരു ആഗ്രഹമായിരുന്നു വായിക്കാൻ പഠിക്കണം കഥകൾ വായിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തില് മലയാളം വായിക്കാൻ പഠിച്ചു ഇപ്പം നന്നായി വായിക്കും എന്നാണ് എൻ്റെ ഒരു ഇത് വായിക്കും എഴുതും അതൊക്കെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ എന്താണ് പഠിച്ചത് എങ്ങനെയാണ് പഠിച്ചയത് ഞാൻ ഒരു ന്യൂസ് പേപ്പറൊക്കെ വച്ച് ഓരോ വാക്ക് പെറുക്കി പെറുക്കിയാണ് പഠിക്കുക അമ്മ പിന്നെ ന്യൂസ് പേപ്പർ വരുത്തുമായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ വായിക്കാൻ ഇവിടെ ഇരുത്തും എന്നിട്ട് പറയും വായിച്ചോ എന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് പെറുക്കി പെറുക്കി പെറുക്കി ഇങ്ങനെ വായിച്ച് ഏഴിലൊക്കെ സൂപ്പറായിട്ട് വായിക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കും അത്രയും വർഷം വേണ്ടി വന്നു എനിക്ക് അതൊന്ന് അത്ര ഫ്ലൂവെൻ്റ് ആയിട്ട് വായിക്കാൻ അതുകഴിഞ്ഞ് ഞാൻ എല്ലാം വായിക്കും എത്ര എത്രപേരുടെ മുൻപിൽ വേണമെങ്കിലും നിന്ന് വായിക്കും പക്ഷെ അത്ര ഫ്ലുവെൻ്റ് ആയി വായിക്കാൻ ഞാൻ അത്രയും സമയം എടുത്തു കാരണം നാലില് നാലില് അഞ്ചിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ആവറേജ് ആയിരുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ അപ്പം നാലിലൊക്കെ അഞ്ചിലൊക്കെ പഠിക്കുമ്പോൾ അമ്മ ന്യൂസ് പേപ്പർ വായിക്കും വാങ്ങിക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ആയിട്ട്